ആ മാഡം ഞാൻ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് ആണല്ലോ അത് അതിന് എന്നാണ് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ഡയറ്റ് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും എനിക്ക് ഇൻഫിനിറ്റ് അതാ എനിക്ക് ഡയബറ്റിക് ഓ നോർമൽ ആകുന്നില്ല ആ ആ രണ്ട് നേരം ഉണ്ട് ആ ആഹാരം ഇപ്പം വൈകിട്ട് ആഹാരം കഴിക്കാതിരുന്നാൽ കറക്റ്റാ കൺട്രോളിംഗ് ആകുന്നുണ്ട് ആഹാരം കഴിക്കാതിരുന്നാൽ ആ മരുന്ന് ഉണ്ട് മരുന്ന് ഉണ്ട് ആ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്

ആ ആ ഡോക്ടറെ കണ്ടോണ്ട് ഇരിക്കുകയാണ് ഇരിക്കുന്നത് അത് ഇപ്പം ഇനി ഇപ്പം എന്തേലും നടപടി മോളിലോട്ട് ഉള്ളത് വല്ലതും ബാക്കി ഉള്ള ടെസ്റ്റുകൾ എല്ലാം നോക്കി യാതൊരു കംപ്ലയിൻറ്റും ഇല്ല

ആ ആ ആ ആ

ആ ആ ആ

ആ പോകാം

ആ ആ പോകാം ശരി മാഡം ആ പോകാം ആ ശരി ആ